ഇപ്പത്തെ കാലത്ത് സംസ്കൃതം മലയാളത്തെ അറ്റ് നിന്ന് പോകുന്ന ഒരു ലഘു രേഖകൾ ഇന്ത്യയിലേക്ക് നമ്മളിപ്പം എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് സംസ്കൃതം മലയാളം എന്ന് വെച്ചാൽ തുഞ്ചത്ത് എഴുതച്ചൻ്റെ ഒരു കാലമായിരുന്നു അദ്ദേഹം നാം പഠിപ്പിച്ച അദ്ദേഹം അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച മലയാള സംസ്കൃതം മലയാളമുണ്ട് അത് ഇന്നിപ്പോൾ അന്യം നിന്നു കൊണ്ടിരിക്കുകയായിരുന്നു സ്കൂളുകളിലുമാവട്ടെ എവിടെയുമാവട്ടെ അവിടെയൊക്കെ ഇംഗ്ലീഷിന് മുൻതൂക്കം കൊടുക്കുന്നൊരിതാണ് മലയാളം പഠിച്ചിട്ട് എന്തിനാണോ നമ്മളുടെ അടുത്ത് ഈ ചോദ്യം വന്നപ്പോൾ മലയാളം പഠിച്ചിട്ടെന്തിനാണ് ഇംഗ്ലീഷാണ് നമുക്ക് വേണ്ടത് മുൻപേ രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് നമ്മുടെ ഒരു കടലാസ് ഫില്ല് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോയി നമ്മളൊര് ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ഫോണിലാവട്ടെ അവിടെ ഇംഗ്ലീഷ് സ്കൂളിലാവട്ടെ അവിടേയും ഇംഗ്ലീഷ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പം മലയാളത്തെ ആർക്കും വേണ്ടാതായി ഇംഗ്ലീഷിനെല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നൊരു ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇംഗ്ലീഷിൽ പഠിച്ചിട്ടാണ് എന്തോ വലിയ ലെവലിലേക്കെത്തി മലയാളം ഒരു കൊച്ച് കൊച്ചിന് പോലും അറിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ മലയാളം എന്ന് പറയുന്നത് ഒരു അഭിമാനമായിരുന്നു ഇപ്പോൾ തിരിച്ചാണ് ഇംഗ്ലീഷെന്ന് പറയുന്നതാണ് നമുക്കഭിമാനം പണ്ടൊക്കെ എഴുത്തച്ഛൻ്റെ കവിതകളും എഴുത്തച്ഛൻ്റെ കഥകളും ഇതൊക്കെ നമ്മളൊത്തിരി വായിച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പം ഇല്ല ഇപ്പത്തെ പിള്ളേർക്കത് ആവശ്യമില്ല പണ്ടൊക്കെ മലയാളം ക്ലാസ്സൊരു ഒത്തിരി ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഏഴ് ക്ലാസുണ്ടെങ്കിൽ ഏഴ് ക്ലാസ്സിലും മലയാളമായിരുന്നു ഇപ്പൊക്കെ ഏത് ക്ലാസ്സിൽ പോയിട്ടും ഒരു ക്ലാസ്സിൽ പോലും മലയാളം പഠിപ്പിക്കാനുള്ള ഇതില്ല ഇപ്പത്തെ കാലത്ത് മലയാളം വായിക്കാൻ പോലും അറിവില്ലാത്തവരാണ് എന്തിന് വായിക്കുന്നു മലയാളം ആ ചോദ്യമാണ് ഇപ്പത്തെ പിള്ളേര് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ മറ്റുഭാഷകൾ മലയാള ഭാഷയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പിള്ളേരെ സ്കൂളിൽ ചേർക്കുമ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് പോയി ചേർക്കുന്നു മലയാളം പഠിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മലയാളം ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മലയാള ഭാഷയെ ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് കുമാരനാശാൻ്റെ കവിതകള് എഴുത്തച്ഛൻ നോക്കണം അവര് ആരാന്ന് പോലും അറിവില്ലാത്തൊരു ലെവലിലേക്ക് നമ്മള് എത്തി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മലയാള ഭാഷ അതിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല ഇപ്പം അതില്ല കാലം എത്തിച്ച് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസ്കൃതം സംസ്കൃതം ഇന്ത്യയിൽ സ്ഥിരം മറ്റ് ഭാഷകൾ മലയാള ഭാഷയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാൻ ആർക്കും താൽപ്പര്യമില്ല വിദ്യാഭ്യാസം കുറവായിരിക്കും എന്ന് സ്വഭാവമുള്ളവരാണ് അവരുടെ രക്ഷകർത്താക്കള് അതൊക്കെ നമ്മള് മാറ്റണം നമ്മുടെ സംസ്കൃതമായ മലയാള ഭാഷയെ നമ്മൾ നിലനിർത്തുകയും നമ്മുടെ പിള്ളേരെ നമ്മളത് പഠിപ്പിക്കുകയും ചെയ്യണം അതാണ് നമുക്ക് ഏറ്റവും നല്ലത് ചെയ്യണ്ടത് നമ്മള് ഇന്ത്യയിൽ താമസിക്കുമ്പോൾ അല്ലേ നമ്മൾ കൊച്ച് കേരളത്തിൽ താമസിക്കുമ്പോൾ താമസിക്കുമ്പോൾ നമുക്ക് മലയാളം അറിഞ്ഞിരിക്കണം അതെനിക്കും അഭിമാനമാണ് അതും എല്ലാവരും ഓർക്കണം ഓർക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കൃത മലയാള ഭാഷയെ നമ്മള് ആരും പഠിക്കാതെ പോകരുത് അതൊര് ഒറ്റൊരു വാക്ക് പറഞ്ഞു പറയട്ടെ